ഫാഷനിൽ ഏർപ്പെടുന്ന കുറേ പേരുണ്ട് അതായത് ഫാഷൻ ഡിസൈനിങ്ങ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫാഷൻ ഡിസൈനിങ് എന്ന് വെച്ചാൽ എല്ലാ അതായത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഉടുപ്പെന്ന് വെച്ചാൽ ഓരോ ഓരോരുത്തർ ഡിസൈൻ ചെയ്യുന്ന ഉടുപ്പുകളാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറ് നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച് ഉപയോഗിക്കുന്നത് കുറവാണ് അപ്പം അതിനായിട്ട് ഇഷ്ടം ഉള്ള ഒരുപാട് പേരുണ്ടാവും അതിൽ ചെല പോരാത്തതിന് പരസ്യം സിനിമ ഇതിനൊക്കെ സിനിമ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ലൈഫായിരിക്കും സിനിമാ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതായത് പലരും ആഗ്രഹിച്ച് കയറുന്ന സിനിമേയിൽ കയറണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലാണ്ട് എന്തെങ്കിലും ഭാഗ്യത്തിന് സിനിമയിൽ കയറിയ ആൾക്കാരും ഉണ്ടാവും സിനിമയെക്കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം അത് ബാക്കി കരകൗശല മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൺപാത്രം നിർമ്മിക്കുന്നത് അതേപോലെത്തന്നെ എന്താ പറയുക ഈ ഗ്ലാസുകൾ നിർമ്മിക്കുന്നത് പിന്നെ ഓരോ ഇൻസ്ട്രുമെൻറ്സ് നിർമ്മിക്കുന്നവർ അവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ടാലൻറ്റഡ് ഉള്ള ആൾക്കാരാണ് കാരണം അവരുണ്ടാക്കിയ വാദ്യോപകരണങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോഴും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അപ്പം ഇതേപോലെ ഒരുപാട് കാര്യങ്ങളണ്ട് നമ്മൾ കരകൗശല മേഖല സംസ്ഥാനത്ത് മറ്റ് മേഖലകളെ സ്വാധീനിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്